മത്സ്യബന്ധനം എപ്പോഴാണ് വിജയകരമായി തീരുക എന്നന്നുവച്ചാൽ നമ്മളുദ്ദേശിക്കുന്ന രീതിയിൽ മത്സ്യത്തിൻറെ ലഭ്യത കിട്ടുമ്പോഴാണ് നമ്മള് ഈ മത്സ്യബന്ധനം ഒരു വിജയകരമായിട്ടുള്ള അനുഭൂതിയിൽ എത്തിച്ചേരുന്നത് വല നിറച്ച് മീൻ ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ആനന്ദം നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പാ കഴിയുന്നതിലും വളരെ വലുതാണ് ഈ അവസരങ്ങളിൽ നമ്മൾ വല വലിച്ചു കയറ്റുമ്പോൾ പലരീതിയിലുള്ള മുദ്രാവാക്യങ്ങളും അതുപോലെതന്നെ പാട്ടുകളും പാടി കരഘോഷം മുഴക്കി മറ്റുള്ളവരെ ഉത്തേജിപ്പിച്ച് കൊണ്ടാണ് നമ്മൾ വല വലിച്ചു കയറ്റുന്നത്